രാസവളത്തേക്കാളും നല്ലത് ജൈവവളമാണ് എന്താണെന്നു വെച്ചാൽ ജൈവവളം നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്താണെന്നു വെച്ചാൽ നമ്മൾ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന വേസ്റ്റോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തെ ഒരു ഹോട്ടലിലോ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ പശു വളർത്തുന്നിടത്തുനിന്നുള്ള ചാണകമോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കാം ഇത് മറ്റേതെന്ന് വെച്ചാൽ നല്ല പൈസയും കൊടുത്ത് നമ്മൾ സാധനവും മേടിച്ച് മണ്ണിലേക്കടിക്കുമ്പോൾ മണ്ണിന് നന്നായിട്ട് കേടാണ് ഒന്നാമത് പിന്നെ ഇതൊക്കെ നശിച്ചു പോകുന്നു അത് ജൈവവളം എന്നു വെച്ചാൽ ജൈവവളം യൂസ് ചെയ്തിട്ട് എല്ലാം ചാവണമെന്നില്ല എന്നാലും രാസവളം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെടികളിലെ പ്രാണികളെയൊക്കെ കൊല്ലാൻ നോക്കും ചാവുകയും ചെയ്യും അതിൻ്റെ കൂടെ ഇരട്ടി അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് വിഷങ്ങൾ ഈ പച്ചക്കറിയിലേക്കോ ഇതിലേക്കൊക്കെ അത് അത് നമ്മൾക്കും കേടാണ് പല പല രോഗങ്ങളുടെ ഒക്കെ കാരണമാവുമത് അതാണ് രാസവളത്തേക്കാളും നല്ലത് ജൈവവളമാണെന്ന് എല്ലാവരും പറയുന്നത് പക്ഷെ ഈ ഒരു തലമുറയിൽ രാസവളമാണ് കൂടുതൽ ജൈവളത്തേക്കാട്ടിയും കൂടുതൽ രാസവളമാണത് ഇത് കുറച്ച് പണിയാണെങ്കിൽ ജൈവളത്തിന് പൈസ കുറവാണ് ഈ പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും രാസവളം ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും എന്തായാലും എന്തു വെച്ചാലും ജൈവവളമാണ് രാസവളത്തേക്കാളും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം